ഞങ്ങൾ ഞാൻ വീട്ടിലും കൂടുതലീ ലുഡോ ക്യാരംസ് പാമ്പ് പാമ്പും കോണി ഇതൊക്കെ ചെസ്സ് ഗോലി ഇതൊക്കെ ഞാൻ കളിച്ചിട്ടുണ്ട് പക്ഷേ കൂടുതൽ കളിച്ചിരിക്കുന്നത് ആയിരിക്കും ലുഡോ ആണ് കളിക്കുന്നതെങ്കിൽ വെച്ചാൽ ഞങ്ങൾ വീട്ടിലെന്തെങ്കിലും പരിപാടികൾ വരുമ്പം ഞങ്ങൾ കസിൻസ് ഒക്കെ വീട്ടിൽ അപ്പോൾ ഞങ്ങളിങ്ങനെ നാല് പേരുണ്ടാകും നാല് പേരിരുന്നു കളി തുടങ്ങും കളിയിൽ നമ്മൾ മൊത്തം കോമഡിയാണ് എന്നു വെച്ചാൽ ഇങ്ങനെ ഓ ഇങ്ങനെ അവനേത്യ്യ് അവന് ഒന്ന് കിട്ടല്ലേ അവന് രണ്ട് കിട്ടല്ലേ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞ് കൊണ്ടേ ഇരിക്കും എന്നിട്ട് ഈ പറയുന്നവനാകും ഏറ്റവും അവസാനം തോൽക്കുക അതാണ് അതിൻ്റെ പ്രത്യേകത പിന്നെ പിന്നെ ലുഡോ കളിക്കാൻ ഞങ്ങൾ മൂന്നും ആൺപിള്ളേരും ഒരു പെൺകുട്ടിയാണ് ലുഡോ കളിക്കാൻ ഇപ്പം അവളെപ്പോഴും ഞങ്ങളെ തോൽപ്പിക്കും ബാക്കി മൂന്ന് പേര് ചേർന്നിട്ട് അപ്പം അതിനെ പിടിച്ച് കാലിയാക്കുക ഇങ്ങനെ പിടിച്ചുള്ള ഹോബീസാണ് ഈ ലുഡോ കളിക്കണതിലൂടെ ഉണ്ടാകും പക്ഷേ കാരം ബോർഡ് അങ്ങനെ അല്ല കാരം ബോർഡ് കളിയ്ക്കാൻ ഞങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ട്സാണ് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കൂട്ടുകാരൊക്കെ ആയിട്ടാണ് ഞാൻ കാരം ബോർഡ് കളിക്കുക അത് സീനാണ് മറ്റേ ആ ലൈറ്റൊക്കെ വെച്ച് പൗഡറൊക്കെ ഇട്ട് ഹൈയ്ലി സീരിയസായിട്ടാണ് കാരം ബോർഡ് കളിക്കുക അതും ടീമൊക്കെ ആയിട്ട് കാരം ബോർഡ് കളിക്കും അതെന്ന് പറഞ്ഞാൽ കളി തമാശയില്ല വളരെ സീരിയസായിട്ട് ബെറ്റിനൊക്കെ വെച്ചിട്ട് കാരം ബോർഡ് കളിക്കും ഇത് വൻ സീരിയസ് കളിയാണ് എന്നു വെച്ചാൽ കളി കഴിഞ്ഞ് പിന്നെ ഓട്ടോമാറ്റിക്കൽ കോമഡിയാകും പക്ഷെ കളീൻ്റെ ഇടയിൽ ടീമൊക്കെ മത്സരിച്ച് ജാതി മറ്റേ ഓൾ ഇന്ത്യയിൽ കാരം ബോർഡ് കളിക്കേ കാരം ബോർഡ് മത്സരം നടത്തണ മാതിരിയൊക്കെയാണ് ഇവന്മാർ ജാതി സീരിയസ്സിലി കണ്ണിങ്ങ് ഷോട്ടുകളെന്നും പറഞ്ഞിട്ട് സ്കോർ ബോർഡിലൊക്കെ എഴുതാനും സ്കോർ എഴുതാനൊക്കെ ഒരു ഡാവുണ്ടാകും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നെ റോങ്ങ് വിളിക്കാനും അങ്ങനെയൊക്കെ കുറേ ടീമുകൾ വേറെ സെപ്പറേടുണ്ടാകും ക്യാരംസ് കളിക്കുന്നതിൻ്റെ ഓർമ്മ വളരെ ഡിഫറൻറ്റാണ് പിന്നെ ഗോലി പിന്നെ ഇപ്പടുത്തുന്നുമില്ല വളരെ ചെറുപ്പത്തിൽ ഒന്നോ രണ്ടോ വട്ടം ചെറിയ ഈ കുഴികൾ കുഴിച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ ഇടുന്ന മാത്രം ചെറുതായിട്ട് കളിച്ചിട്ടുള്ളു അതേറ്റവും പണ്ടത്തെ കളിയാണ് താങ് ഗോലിയിൽ നിന്നാണ് തുടങ്ങിയത് ശരിക്കും ഇങ്ങനെ കളികളൊക്കെ പഠിച്ചിട്ടും ഗോലി ഇങ്ങനെ കുഴിലേക്ക് ഇട്ടിട്ട് ഇത്ര പോയിൻറ്റ് ആ കുഴിക്കിട്ടാൽ ഇത്ര പോയിൻറ്റ് അപ്പം ഓരോ കുഴിക്ക് ഇത്ര പോയിൻറ്റ് വെച്ചിട്ടുള്ള ഇങ്ങനെ പോയിൻറ്റ് വെച്ചിട്ടാണ് കിട്ടുക അപ്പം ഇതൊക്കെയാണ് ഞാൻ വീടിൻ്റെ അകത്തും പുറത്തും ഇങ്ങനെ വീടിൻ്റെ ഇപ്പം അകത്തുള്ളതായിട്ട് ആത് ആസ്വദിച്ചുള്ള കളികൾ ഇങ്ങനെയൊക്കെയാണ് ആസ്വദിച്ച രീതികളൊക്കേ ആയിട്ട് വരണേ